പാത്രം കഴുകുന്നത് എങ്ങനെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെയിനായിട്ട് പാത്രങ്ങളൊക്കെ അതായത് നമ്മള് പാചകങ്ങളൊക്കെ കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് പിന്നെ കഴുകാനുള്ളതൊക്കെ എടുത്തു വയ്ക്കും എന്നിട്ട് അതില് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മള് ഭക്ഷണ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആദ്യം കളഞ്ഞിട്ട് മാത്രമേ സിങ്കിലിടാൻ പാടുള്ളു അല്ലെങ്കിൽ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിലേക്ക് ഈ പാത്രം നമ്മള് കഴിക്കുന്ന വേസ്റ്റൊക്കെ അടിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം പോകാണ്ട് വെള്ളം കെട്ടി നിന്ന് സ്മെൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരി പത്രങ്ങളും കാര്യങ്ങളൊക്കെ ചാരം വച്ചിട്ടാണ് കഴുകാറ് ചാരവും അതായത് ചകിരി അതാ അതാ തേങ്ങാച്ചകിരി വച്ചിട്ട് നല്ലോണം ഉരച്ച് കഴുകുകയാണ് ചെയ്യുക കരി പത്രങ്ങള് കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നമ്മുടെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വിം ലിക്വിഡ് അല്ലങ്കില് വിം സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ കിട്ടുന്ന സ്ക്രബ്ബർ കൊണ്ട് നല്ലോണം കഴുകുവാണ് ചെയ്യുക എണ്ണ മയമുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലോണം നമുക്ക് കഴുകാനൊക്കെ പറ്റും എണ്ണമയമുള്ള പിന്നെ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ നമ്മള് വിമ്മിൻ്റെയോ സോപ്പിൻ്റെയോ എന്തെങ്കിലുമിട്ടാൽ സ്ക്രബ്ബറുമിട്ട് നല്ലോണം ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും